സാങ്കേതിക വിദ്യയുടെ പുരോഗമനങ്ങള് കാരണം നമുക്കിപ്പം ലോകത്തിലെ എവിടെ ഉള്ള ആൾക്കാരുവായിട്ട് നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും കാര്യം ഇപ്പം മക്കള് വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് അവർക്കൊരു റിലീഫ് ആണ് നമുക്കൊരു റിലീഫ് ആണ് ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അപ്പം അപ്പം നമുക്കറിയാനായിട്ട് സാധിക്കും നാട്ടിലുള്ള കാര്യങ്ങളും അവർക്കറിയാം അവർക്കും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ അവിടുന്നും നമുക്ക് പിന്നെ എല്ലാ ദിവസവുമുള്ള വിവരങ്ങളറിയാനായിട്ട് അപ്പം അവർക്കും മനസികമായിട്ടും വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യവാണ് അപ്പം സാങ്കേതിക വിദ്യയുടെ ഒരു പുരോഗമനം നമ്മുടെ ഭാവി നിലനി പ്രതേകിച്ചും പ്രായമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ അധികം പ്രയോജനമുള്ളതാണ്